സ്കൂൾ പ്രവേശനത്തിന് ഫീസ് ഘടനയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ഫണ്ടൊന്നുമില്ല കാരണം ഗവൺമെൻറ്റ് സ്ക്കൂളിലാണ് പഠിയ്ക്കാറ് പിന്നെ പിടിഎ ഫണ്ട് മേടിയ്ക്കാറുണ്ട് അതൊരു ചെറിയ പൈസയേ ആവുള്ളൂ അതുപോലത്തന്നെ ക്രിസ്മസ് എക്സാമും പിന്നെ ഓണത്തിൻ്റെ എക്സാമും പബ്ലിക് എക്സാമ് അങ്ങനത്തെ ഓരോ എക്സാമിന് ഫീസൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങിനെ ചെറിയ ചെറിയ ഫീസൊക്കെയാണുള്ളത് അല്ലാണ്ട് വലിയ വലിയ ഫീസൊന്നും കൊടുക്കാറില്ല അങ്ങനെ അങ്ങനെ ചോദിക്കാറില്ല അങ്ങനെ ആ ഒരു പരിപാടി ഇല്ല ഗവൺമെൻറ്റ് സ്കൂൾ ആയതുകൊണ്ട്